ആരായിരുന്നു ഓക്കേ എന്തായിരുന്നു നിങ്ങളുടെ ആവശ്യം തടി അതിപ്പോൾ ഇപ്പോൾ പോപ്പുലറായിട്ടുള്ള അത് വെച്ചാൽ നല്ല ട്രെൻഡിങ്ങായിട്ടുള്ള തടി തടി ടൈപ്പുകളെന്നു വെച്ചാൽ ആഞ്ഞിലി തേക്ക് ഇതൊക്കെയാണ് നിങ്ങൾക്കേതാണ് താല്പര്യം വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ

തേക്കെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നിങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നെന്നു പറയുമ്പോൾ ഞങ്ങൾ വലിയ വലിപ്പത്തിലാണത് ഉണ്ടാക്കി വെക്കാറുള്ളത് അപ്പോൾ ഇത്ക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെയാണെങ്കിൽ തന്നെ ഒരു കുറച്ചൊക്കെ കാശാകും പിന്നെ തേക്കിനൊക്കെയാണേ ഇപ്പോൾ ചെറുതായിട്ട് വില കൂടിയിട്ടുണ്ട് കാരണമില്ല നേർത്തെ കുറവായിരുന്നു ഇപ്പോൾ കൂടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ക്വാളിറ്റിയുള്ളതാണ് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അഷൂറൻസ് തരുന്നതായിരിക്കും അതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യമില്ലാതെ ഞങ്ങൾ ഞങ്ങൾ തന്നെ ഗ്യാരൻറ്റി തരുന്നു ഒരു കുഴപ്പമില്ല ഓക്കേ ചെയറൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു അതൊക്കെ അതിന് വിഷയമൊന്നുമില്ല ഞങ്ങൾ നിങ്ങൾക്കെത്രയാണോ വേണ്ടത് അത് ഞങ്ങളുണ്ടാക്കി തരുന്നതായിരിക്കും തടിക്കുള്ള ഷോർട്ടേജുണ്ടെങ്കിലേ എന്തെങ്കിലൊക്കെ വിഷയം വരത്തുള്ളൂ ഇപ്പോൾ ഷോർട്ടേജല്ല ഇപ്പോൾ വളരെ റെഡിലി അവൈലബിളാണ് ഒരു കുഴപ്പമില്ല ഓക്കേ വേറെ ഐറ്റംസെന്നു പറയുമ്പോൾ കൃത്യം തടിയല്ല ഞങ്ങളൊരു വേറൊരു പ്രൊഡക്ടുണ്ട് മൾട്ടി വുഡ്ഡെന്നു പറഞ്ഞ പ്രൊഡക്ടുണ്ട് ഇത് തടിയല്ല ഇത് പ്ലാസ്റ്റിക് പോലത്തൊരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇതു വളരെ ചീപ്പാണ് അധികം നല്ല ഭാരമൊന്നും വേണ്ടാത്ത കാര്യങ്ങൾക്കു വേണ്ടി ഈ മൾട്ടി വുഡ് ഉപയോഗിക്കാം സ്ട്രക്ച്ചറിനു വലിയ ഭാരം വേണ്ടാത്ത കാര്യങ്ങൾക്കു വേണ്ടി മൾട്ടി വുഡ് യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല ആ ചെയ്തു തന്നേക്കാം അതിന് ഒരു ഒരു വിഷയമല്ല ഓക്കേ നിങ്ങൾക്ക് വേറെന്തെങ്കിലും പറയാനായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾ ഡീറ്റെയിൽസിൻ്റെ ഒന്നാവശ്യമുണ്ടായിരുന്നത് അതൊന്ന് നിങ്ങൾ അയച്ചേരാർന്നെങ്കിൽ എന്തെങ്കിലും പ്രോസിജേഴ്സൊക്കെയാണേ അതിൻ്റെ രീതിയിലൊക്കെ ചെയ്തോളാം ഒരു കുഴപ്പമില്ല ഓക്കേ ജസ്റ്റ് ഒരു മിനിറ്റേ ഒന്നു നോട്ട് ചെയ്യട്ടെ ഓക്കേ പറഞ്ഞോളൂ എത്ര ജസ്റ്റ് ഒരു വലിപ്പം എത്രയാണെന്നൊന്നു ഒരു പറയാൻ പറ്റുമോ ഓക്കേ അപ്പോൾ എട്ട് പേരിരിക്കാൻ പറ്റുന്ന ടേബിൾ പിന്നെ സോഫ എന്ത് കൂട്ട് മോഡലാണ് ഉദ്ദേശിക്കുന്നേ അതിൻ്റെ ഉള്ളിൽ കുഷ്യനിങ് എന്തെങ്കിലൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഓക്കേ അപ്പോൾ സോഫയുടെ മുകളിൽ എന്തെങ്കിലും കുഷ്യനിങ്ങെന്തെങ്കിലും കുഷ്യനായിട്ട് എന്തെങ്കിലും വെക്കേണ്ട ആവശ്യമുണ്ടോ ഓക്കേ കളറെന്ത് കൂട്ടാണ് നിങ്ങളുദ്ദേശിക്കുന്നത് ഓക്കേ പിന്നെ പിന്നെ വേറെന്തെങ്കിലും നാല് ചെയേർസ് കൂടി എവിടെയിടാനായിരുന്നു റൂമിൽ വെക്കാൻ കൂട്ടുള്ളത് അതിപ്പോൾ പ്ലാസ്റ്റികിൻ്റെയോ അതോ തടിയുടെ തന്നെ വേണോ തടി തന്നെ വേണമല്ലേ ഓക്കേ അപ്പോൾ വേറെന്തെങ്കിലും കട്ടി നിങ്ങളുടെ റൂമിൻ്റെ സൈസ് നോക്കിയിട്ട് വേണോ അതെയോ വേറെന്തെങ്കിലും സെപ്രേറ്റായിട്ട് ആണോ ഉദ്ദേശിക്കുന്നത് എത്ര സൈസ് ആണ് ഒരു മീഡിയം ആണോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ റൂമിൻറ്റൊരു വലിപ്പം ഒരു എസ്റ്റിമേറ്റ് നിങ്ങളെത്രയാണ് എത്രയാണെന്നു ഉദ്ദേശിക്കുന്നെന്നു പറയാമോ ഞാൻ വാട്സാപ്പിലിട്ടേക്കാം ഓക്കേ വേറെന്തെങ്കിലും വേറൊന്നുമില്ലല്ലോ ഓക്കേ ഇത്രയേയുള്ളു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പിലിട്ടേര് ഇൻകേസ് എന്തെങ്കിലും മിസ്സായി പോയെങ്കിൽ അപ്പോൾ വേറൊന്നുമില്ല നിങ്ങൾക്ക് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഒന്നെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഡീലർഷിപ്പ് വന്നിട്ട് കണ്ടിട്ട് എന്താ വെച്ചാൽ ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല ഓക്കേ അപ്പോൾ വേറൊന്നുമില്ലല്ലോ ഓക്കേ ഓക്കേ താങ്ക് യൂ ഫോർ കോളിങ് ഓക്കേ ശരി താങ്ക് യൂ